ഞാന് ഒരു മാസം മുന്നേ ഒരു പുതിയ ഫോൺ മേടിച്ചായിരുന്നു ഞാൻ മേടിച്ചത് റെഡ്മി നോട്ട് സിക്സ് പ്രോ ആണ് എനിക്ക് ഇതിനു മുന്ന് ഉണ്ടായിരുന്നത് മൈക്രോമാക്സിൻ്റെ ഒരു ഫോണായിരുന്നു അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി പോയത് കാരണമാണ് ഞാൻ പുതുതായിട്ട് ഒരു ഫോൺ വാങ്ങിക്കാൻ തീരുമാനിച്ചത് ഈ നോട്ട് സിക്സ് പ്രോ ആണെങ്കില് വളരെ എനിക്ക് നല്ലായിട്ട് ഹാൻഡ് കൊണ്ട് യൂ നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസർ ഫ്രണ്ട്ലി ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നുവച്ചാൽ അതിൻ്റെ ഫോട്ടോ ക്ലാരിറ്റി വളരെ മികച്ചതാണ് എന്നുവച്ചാൽ അതിന് ഫ്രണ്ട് ക്യാമറയുണ്ട് ബാക്ക് ക്യാമറയുണ്ട് അത് നന്നായിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നല്ല ഡാറ്റാ സ്പീഡ് കിട്ടുന്നുണ്ട് രണ്ട് കൂടാതെ രണ്ട് സിം ഇടാൻ പറ്റുന്നുണ്ട് പിന്നെ സ്പീക്കറും ഒക്കെ വളരെ നല്ലൊരു ഫോൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ സിക്സ്റ്റി ഫോർ ജി ബി നമുക്ക് സ്റ്റോറേജും കിട്ടുന്നുണ്ട് നമുക്കാവശ്യുള്ള ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്പേയ്സ് അതുകൊണ്ട് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഫോണൊരു നല്ല എല്ലാവർക്കും എനിക്ക് റെക്കമെൻറ്റെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഞാനാണെങ്കില് ഇതിനു മുന്ന് ഇത് ഒര് ഒരു തവണ മാത്രം ഇങ്ങനെ ഈ ഫോ ഇത്ര ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് എനിക്ക് കുറച്ചും കൂടെ മറ്റേ മൈക്രോമാക്സിനെ സംബന്ധിച്ച് നോക്കുമ്പോത്തേക്ക് കുറച്ചുംകൂടെ കംഫർട്ടബിളായിട്ടാണ് തോന്നിയിട്ടുള്ളത്